പരമ്പരാഗത വസ്ത്രങ്ങളുടെ പേര് പറയുക എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളാ സാരി സെറ്റ് സാരീ വന്നിട്ട് ഒരു കേ പരമ്പരാഗത വസ്ത്രം ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് കൂടാതെ അത് തിരുവാതിര മറ്റും കളിക്കുമ്പോഴാണ് ആ ഡ്രസ്സ് കൂടുതലായും സ്ത്രീകൾ യൂസ് ചെയ്യുന്നത് ഓം മറ്റേ വ് ക അത് അതിന് യൂസ് ചെയ്യുന്ന ആഭരണം അട്ടിയല്ല് വള തോരണം എന്നിവയാണ് ഇത് പരമ്പരാഗത വസ്ത്രങ്ങളായി നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ് പാരമ്പരാഗതമായും നാം ഉപയോഗിച്ച് വരുന്ന പ്രധാനമായും ഇപ്പോഴും ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്നതുമായ ഒരു സാരിയാണ് കേരളാ സാരി കൂടാതെ പാരമ്പരാഗതമായും നാം ഉപയോഗിച്ചോണ്ടിരിക്കുന്ന രാജാക്കന്മാരുടെയും മറ്റ് രാജാപ്പാട്ട് നാടകങ്ങളിലും മറ്റും കാണുന്ന വസ്ത്രങ്ങൾ ഇതിന് ഒരു ഉദാഹരണമാണ് ഇത് ഉപയോഗിക്കുന്നതിലൂടെ കുട്ടികളും മറ്റും ഇപ്പോൾ യുവജനോത്സവ വേദികളിലും മറ്റുമാണ് ഇപ്പോൾ ഇത്തരം നൃത്തങ്ങൾ കൂടുതലായും നാം കാണുന്നത് ഇത് അവർക്ക് ഗ്രേഡ് മാത്രം ലഭിക്കുന്നതിന് പരമ്പരാഗത വസ്ത്രങ്ങളും പരമ്പരാഗത ആഭരണങ്ങളും ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ഗ്രേസ് മാർക്കുകൾ ലഭിക്കുകയുള്ളു ഇതിലൂടെ കുട്ടികളുടെ കഴിവ്